ഹലോ ഹലോ ഞാൻ ഞാൻ മിനിയാണ് ഞാൻ മിനിയാണ് മനസ്സിലായോ ആ എന്നാ ഉണ്ട് വിശേഷം ഇന്ന് അവധിയൊക്കെയായിട്ട് എന്നാ എടുക്കുകയാണ് ആണോ ആ ആ ഞാനും അതെ അപ്പം ഞാനിങ്ങനെ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റിനെക്കുറിച്ചൊക്കെ പിള്ളാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നേ ഓഹ് പരീക്ഷ ഒക്കെ അടുത്ത് വരികയല്ലേ ഇനി എന്നാൽ ഉണ്ട് അപ്പം പിള്ളാരെല്ലാം ആണെങ്കിൽ വലിയ ഉഴപ്പൊക്കെയാണെന്നേ കുറച്ച് പിള്ളാരൊക്കെ അപ്പം പിള്ളേരെ ഒന്ന് നല്ല രീതിയിൽ പഠിപ്പിച്ച് പഠിച്ച് നല്ല റിസൾട്ട് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട് പക്ഷേ അതിന് നമുക്കെന്തോ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഗ്രൂപ്പുകളായിട്ടൊക്കെ ഇരുത്തി പിള്ളേരെ ഒന്നു പഠിപ്പിക്കാനായിട്ട് നമുക്കേ ഒന്ന് ആ നാൻസീടെ അഭിപ്രായം എന്താ ആ ആ ജിൻസി ആ ജിൻസി നമ്മുടെ പിന്നെ ബാബുകുട്ടൻ അവരൊക്കെ ഇത് എന്നാ ഉഴപ്പാ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുകയില്ല കളി കളി കളി കളി തന്നെ പരീക്ഷ ആണെന്നോ അങ്ങനെ ഒന്നും അവർ വീട്ടുകാർ ശ്രദ്ധിക്കത്തില്ലന്നേ അതാണ് കുഴപ്പം നമ്മൾ ആ നമുക്കപ്പം പിള്ളാർ നമ്മുടെ സ്കൂളിന് നല്ല റിസൾട്ടൊക്കെ കിട്ടേണ്ടേ അതുകൊണ്ട് നമ്മൾക്കിത് പ്രിൻസിപ്പാളിനോട് തന്നെ നമ്മൾക്കൊന്ന് ചോദിച്ചിട്ടേ പിള്ളേരെ നമുക്ക് ഒരു പഠിത്തം മൂന്ന് മൂന്നര വരെ അല്ലെങ്കിൽ ക്ലാസൊക്കെ അന്നേരം ഒരു ഒരു ഒരു ഒരു പത്ത് അരമണിക്കൂറുകൂടെ കൂട്ടി ഇരുത്തി നമുക്കൊന്നു അപ്പോൾ പിള്ളേരെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം ആ അതെ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും നല്ലതായിട്ട് പഠിക്കുന്ന പിള്ളേരാണ് പക്ഷെ ഈ ഉഴപ്പൊക്കെ ഉഴപ്പായതുകൊണ്ടാണ് നമ്മളിത്തിരി നേരം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവർ ചിലപ്പം മുന്നോട്ട് കയറി വരും അതുകൊണ്ട് തന്നെ ചിലപ്പം കുട്ടിയുടെ അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് നമുക്കത് ആ ആ ഓഹ് അനുവാദം ചോദിച്ചാൽ നമുക്കൊരു അര മണിക്കൂറുകൂടെ ഇരുത്തി പിള്ളേരെയൊക്കെ പഠിപ്പിക്കാമല്ലോ ആ ആ എന്നിട്ട് എപ്പോൾ അടുത്ത മണ്ടേയിൽ തിങ്കളാഴ്ച്ച നമുക്ക് എന്നിട്ട് അച്ഛനോടൊന്ന് ചോദിക്കാം കേട്ടോ നാൻസിയോട് ചോദിക്കണേ നാൻസി ഇവിടെ വരണം ടീച്ചർ ടീച്ചറുകൂടെ വരണം ആ ആ അതുതന്നെ പേരിത് തന്നെ അല്ലല്ലോ നമുക്കെല്ലാ പിള്ളേരും ഒരു പോലെയല്ലേ നമ്മൾ പഠിപ്പിക്കണ പിള്ളേർക്ക് നിർത്തുന്നില്ലേ അതുതന്നെ

ഓക്കെ ആ പിന്നെ വേറെ വിശേഷം ഒന്നും ഇല്ലല്ലോ ഞാനിപ്പോൾ തിരക്കാണ് ഞാൻ ഇത് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു കേട്ടോ ഓക്കെ എന്നാൽ ഇനി നമുക്ക് ഞായറാഴ്ച്ച തിങ്കളാഴ്ച്ച കാണാം